ചേട്ടാ നമസ്കാരം ഞാൻ എനിക്കൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഏരിയയിലാണ് അപ്പം എനിക്കിപ്പോൾ ഇവിടുന്നടുത്തിപ്പോൾ ക്യാബോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയോ വല്ലതും കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ അവിടെ ഇത്ര അടുത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടിയാൽ നല്ലൊരു ഉപകാരായി എനിക്ക് അവിടെ നിന്ന് ഒറ്റപ്പാലം എത്തണം ഒറ്റപ്പാലത്താണ് വീട് അപ്പോൾ ഒറ്റപ്പാലം എത്താൻ വേണ്ടീട്ടാണ് അപ്പോൾ ഒറ്റപ്പാലം കുറച്ച് ചേനക്കത്തൂർ കാവിൻ്റെ ഒക്കെ അവിടെ ആയിട്ടാണ് എത്തെണ്ടത് അപ്പം അവടെയ്ക്കു ഒരു ഓട്ടോ എന്തേലും കിട്ടിയാൽ പറഞ്ഞാൽ വളരെ ഉപകാരമായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങടടുത്ത് വല്ല ഓട്ടോ എന്തെങ്കിലും ഈ അടുത്ത ലൊക്കേഷനിൽ ഉണ്ടെങ്കിൽ ഒന്ന് അയക്കണേ